സുഖമാണ്

ഇപ്പം സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പഴ്ത്തേക്ക് നമ്മൾ ചുറ്റുവട്ടത്തുള്ള അവർക്ക് ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ആവശ്യം വരുവാണെങ്കിൽ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനത് അവർക്ക് ചെയ്ത് കൊടുക്കും ഇപ്പം നേരത്തേ ഒരുപാട് സാമ്പത്തികം അല്ലെങ്കിൽപ്പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒരു ഒരു ആരെങ്കിലും പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവരുടെ കൂടെയൊന്ന് കൂടെ ചെല്ലാമോ അല്ലെങ്കിൽ അവർക്ക് സുഖം ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ട് ആവുന്നത് ചെയ്യും അതുപോലെ സാമ്പത്തിക മേഖലകളിൽ ഇവിടെ ഇപ്പം ബാങ്കിലൊന്ന് കൊണ്ടുപോയി പണമടയ്ക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ട് കൊടുക്കും എന്നാൽ ആവുന്ന രീതിയിൽ എന്നേക്കൊണ്ട് രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന് പരമാവധി ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പം ഹോസ്പിറ്റുകളിൽ ഒക്കെയാണെങ്കിലും പൊതിച്ചോറുകളൊക്കെ കൊടുക്കണമെങ്കിലും അത് കൊടുക്കും അതിന് ആരെയൊക്കെ കൂട്ട് പിടിക്കാമോ അവരെയൊക്കെ കൂട്ട് പിടിച്ച് ഇപ്പം ഒരു പൊതി കൊടുക്കേണ്ടയിടത്ത് രണ്ട് പൊതി കൊടുക്കേണ്ടയിടത്ത് അങ്ങനെ അഞ്ചാറ് പേര് പൊതിയാക്കി അത് ഒരു പത്ത് പൊതിയാക്കി കൊടുക്കും അതുപോലെത്തന്നെ എവിടെയെങ്കിലും ഒക്കെ ഒരു മരണം നടക്കുകയാണെങ്കിൽ ആ ഭവനങ്ങളിൽച്ചെന്ന് അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയോ അല്ലെങ്കിൽ അവിടെ എന്താണ് നമ്മളെക്കൊണ്ട് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ എന്നാൽ ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്ത് അതാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ പിന്നെ നമ്മൾ വാർഡ് സഭകൾ ഇപ്പം വാർഡ് തലത്തിലുള്ള ഒരു കൗൺസിലർമാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ ചോദിച്ചോളും പിന്നെ എന്തെങ്കിലും നമ്മൾ ഇപ്പം ഇപ്പം ഗവൺമെൻറ്റീന്ന് പല ആനുകൂല്യങ്ങളും പലർക്ക് കിട്ടാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ ദേ ഇന്നത് പോലുണ്ട് കെട്ടോ ഇപ്പം പെൻഷൻ വാർദ്ധക്യ പെൻഷൻ വേണ്ടവർക്ക് പെൻഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇന്നതാ നമ്മൾ അറിഞ്ഞ് അറിയാൻമേലാത്തവരുടെ അടുക്കൽ അത് ചെന്ന് പറഞ്ഞ് അവർക്കത് പറഞ്ഞ് കൊടുക്കുകയും അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ നമ്മളാൽ ആവുന്ന എന്ത് കാര്യവും നമ്മളെക്കൊണ്ട് ചെയ്ത് കൊടുക്കും അത് ഞാൻ ചെയ്യുന്ന നമ്മുടെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഞാൻ കൂട്ടുന്നത് പിന്നെ പിന്നെ എന്തുവാണെ എനിക്ക് എന്നേക്കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ ഞാനവർക്ക് ചെയ്ത് കൊടുക്കും